സിനിമ മേഖല എന്നു പറയുമ്പോൾ നമുക്ക് സമയം ചിലവാക്കുവാനും നമ്മുടെ വിനോദത്തിനും ഒക്കെയായി നമ്മൾ കരുതുന്നു എങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ അഭിനയിക്കുന്നവർ കലാകാരന്മാർ അവർക്കൊക്കെ ഇതൊരു ജീവിത മാർഗ്ഗമാണ് അവരുടെ ആ ജീവിതമാർഗ്ഗം അവരെങ്ങനെ മുന്നോട്ടു കൊണ്ടു പോകാം എത്ര ഭംഗിയായി കൊണ്ടു പോകാം അതിലൂടെ എന്തെല്ലാം സമ്പാദിക്കാം എന്നൊക്കെയാണ് അവർ നോക്കുന്നത്

പല വിധത്തിലുള്ള പടലപ്പിണക്കങ്ങളും ഉണ്ടാകുമ്പോൾ ആണ് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ടാകുന്നത് ഓരോ കലാകാരന്മാരെയും അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിലൂടെ അവർ ഒരു നല്ല സ്ഥാനത്തെത്തുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ള കലാകാരന്മാർക്ക് അസൂയയുണ്ടാകാം അതിലൂടെ മറ്റുള്ളവരെ കുറിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ സംസാരിക്കാനും വാർത്തയാകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാൽ ഇവയെ കുറിച്ച് നന്നായി പഠിച്ചു നന്നായി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങൾ മാത്രമേയുള്ളൂ അവർ സംസാരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുമ്പോൾ ഇത് എന്നെ കുറിച്ചും പറയുമെന്ന് അവർ ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേ അതെല്ലാം വേഗം ഇതൊന്ന് റിപ്പോട്ട് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുവാനായി വേഗം മുന്നോട്ട് കൊണ്ടു പോകുകയും ചെയ്യുന്നു പത്രമാധ്യമങ്ങളിലൂടെ എല്ലാവിധമായ ചാനലുകളിലൂടെയും കൊട്ടിഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല പത്രത്തിൽ തന്നെയും വാർത്ത ചെയ്യുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് സിനിമക്കാരെ കുറിച്ച് പറയുന്നത് അവരുടെ സംസാരരീതി അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് അവർ പോലും ചിന്തിക്കുന്നില്ല അതു വഴി മറ്റുള്ളവരുടെ ജീവിതത്തിലാണ് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരെ കുറിച്ചാണോ ഈ പറഞ്ഞുണ്ടാക്കുന്നത് അവരുടെ ഭർ ഭാര്യാ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇവർക്കൊക്കെ കൂടി വിഷമം ഉണ്ടാകുമെന്ന് അവർ ചിന്തിക്കുന്നില്ല എന്തായാലും മറ്റുള്ളവരെ കുറിച്ചിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചാനലുകളും പത്ര മാധ്യമങ്ങളും ഒക്കെ ഇതു ചെയ്യുമ്പോൾ ഇതിലെത്ര മാത്രം സത്യമുണ്ട് എന്ന് ആരാഞ്ഞിട്ട് വേണം ചെയ്യണമെന്നതാണ് എൻ്റെ അഭിപ്രായം എല്ലാം നല്ലതിനാണ് എന്നു ചിന്തിച്ചു കൊണ്ട് ഈ സിനിമയും മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാ ടി വിയും എല്ലാ നല്ലതിനാണ് എന്നു ചിന്തിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം